വൈദ്യുതിയുടെ ചില അപകടങ്ങളെക്കുറിച്ച് ബോധവാനാണോന്നു പറഞ്ഞാൽ തീർച്ചയായും കാരണം വൈദ്യുതി അതായത് ഇലക്ട്രിക്കൽ ഷോക്കെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇത് തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ മരണത്തിനുതന്നെ കാരണമാകാം കരണമായേക്കാം പിന്നെയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഞമ്മ നമുക്ക് പറയാം അതായത് ഷോട്ടായി നിൽക്കുന്ന വയർ കാര്യങ്ങളൊക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഷോക്കടിക്കാനുള്ള കാര്യ സാധ്യതയുണ്ട് പിന്നെയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ചാർജർ കാര്യങ്ങൾ ഫോണിൽ ചാർജൊക്കെ ഓവറായി ഓവറായിട്ടുണ്ടെങ്കിൽ ഫു പൊട്ടിത്തെറിക്കാൻ സാദ്ധ്യതയുണ്ട് ആ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മരണം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റർ കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് വെള്ളം ചൂടാക്കണ ഹീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫാക്കാനൊക്കെ മറന്നുപോയിട്ട് നമ്മൾ പിന്നെപ്പോയി നോക്കുമ്പോൾ പിന്നെപ്പോയി ആ വെള്ളത്തിൽ തൊട്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ ഷോക്കടിക്കും ചിലപ്പോൾ നമ്മൾ അത് നമ്മുടെ മരണത്തിനുവരെ ഇടയായേക്കാം പിന്നെയെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈയിനായിട്ട് ഒരെക്സാംപിൾ പറയുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നൈറ്റൊക്കെ അറിയാതെ ഗ്യാസ് തുറന്ന് വിട്ട് പോയി കിടന്നുവെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ആ ലൈറ്റ് അതായത് ലൈറ്റ് വന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുൾ നമുക്ക് അതായത് നമുക്ക് അവിടെ വലിയൊരു അപകടം ഉണ്ടാകും കാരണമെന്താണ് വെച്ചാൽ അതും അത് തന്നെ ചിന്തിച്ചാലറിയാം ഇലക്ട്രിക്ക് ഷോക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക നമുക്കിതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായതുകൊണ്ടുതന്നെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം കറണ്ടിൻ്റെ ഉപയോഗം കുറക്കുക